ലൈബ്രറികളുടെയെല്ലാം കാലമങ്ങ് കഴിഞ്ഞ് പോയിട്ടിപ്പം അങ്ങനെ ഒരിടത്തും ലൈബ്രറികളൊന്നുമില്ല പുസ്തകങ്ങള് ഒക്കെ നോവലുകളും കഥകളുമൊക്കെ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോള് അതൊന്നും അടുത്ത പ്രദേശത്തോ ഒന്നുമില്ല പിന്നെ ഞങ്ങള് ഇവിടെ അയൽപക്കത്ത് അടുത്തടുത്ത വീട്ടുകാര് ഒക്കെ തമ്മില് പത്രം വരുത്തുന്നുണ്ട് അങ്ങനെ പത്രം വരുത്തി വായിക്കുന്നുണ്ട് പത്രം വരുത്തുന്നുവെന്ന് പറഞ്ഞാല് ദേശാഭിമാനി പത്രം വായിക്കുന്നുണ്ട് മലയാള മനോരമ പിന്നെ പള്ളിക്കല്ലില് നിന്നെടുക്കുന്ന ദീപിക ഇങ്ങനെ ഉള്ള പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അതില് പത്രം വന്ന് ഏറ്റവും അതിരാവിലെ പത്രം വരുമ്പോഴേ മുറ്റത്ത് ഇപ്പോള് കതക് തുറന്നെഴുന്നേറ്റ് വരുമ്പോള് മുറ്റത്ത് കിടക്കുന്ന പത്രമാണ് നോക്കുന്നത് ആ പത്രമെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരുന്ന് അതിലെ ന്യൂസുകളൊക്കെ വായിക്കും പ്രധാന വാർത്തകളായിട്ട് ആദ്യമേ നോക്കും എന്തെങ്കിലും അപകടങ്ങളും മരണ വാർത്തയുമൊക്കെ ആദ്യം നോക്കും നമ്മുടെ ആരെങ്കിലും അറിയുന്നവരൊക്കെയുണ്ടോ അങ്ങനെയൊക്കെ ആദ്യമേ നോക്കും അതുകഴിഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട ഓരോരോ വാർത്തകള് വായിക്കും പിന്നെ പരസ്യങ്ങള് കാണും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങള് അതിനകത്തുള്ളതൊക്കെ കാണും കാരണമെന്താണെന്ന് ചോദിച്ചാല് ഈ പത്രം വായിക്കും പണ്ടൊക്കെ എന്തെങ്കിലും റേഡിയോ ഉണ്ടായിരുന്നു ഇപ്പം റേഡിയോയിലത് വരാത്തപ്പോള് ഇപ്പോള് എല്ലാവരും ടി വിയുടെ മുന്നിലിങ്ങനെ ഓരോന്നും കണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് അങ്ങനെയുള്ള ഒന്നില്ല പക്ഷേ എനിക്കെന്ന് പറഞ്ഞാല് എനിക്കെത്രയായാലും ഞാനൊരു കണ്ണടയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാനങ്ങനെ വീട്ടില് പോയി അപ്പോള് അവിടെയിരുന്ന കസേര മുറ്റത്ത് ഇരുന്ന് തിണ്ണയിലിരുന്നിട്ട് ഞാനിങ്ങനെ വായിക്കും പത്രം മൊത്തം പേജും അത് എല്ലാം തന്നെ ഞാനരി ഒന്നത് നോക്കി കണ്ട് ഓരോ വാക്കുകളും വിടാതെ ഞാന് വായിക്കും എനിക്ക് പത്രം വായിക്കുന്നത് ഭയങ്കരം പത്രവും മാസികയുമൊക്കെ വായിക്കുന്നത് എനിക്ക് ഭയങ്കരം ഇഷ്ടമാണ് കൂടുതലും ഈ ദേശാഭിമാനി വരുത്തുന്നത് അതൊരു പാർട്ടി പത്രമായതുകൊണ്ടാണ് അതത്ര വായിക്കുകയില്ല പക്ഷേ ദീപികയും മലയാള മനോരമയും വായിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ അടുത്ത വീട്ടില് മനോരമയും വരുത്തുന്നുണ്ട് ഞങ്ങള് ദീപികയില് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ദീപിക പത്രത്തില് വരുന്ന വാർത്ത ഞങ്ങള് അങ്ങ് അപ്പുറത്തുള്ള വീട്ടുകാരോട് പറയും ഇന്നത് അതിനകത്തുണ്ടായിരുന്നു ആ വാർത്ത ഹാ കണ്ടു എന്ന് പറയുമായിരുന്നു ഇല്ലെങ്കില് എന്നാല് ആ പത്രമൊന്ന് തരണമെന്ന് പറയും ഉടനെ ഞങ്ങള് അങ്ങോട്ട് ആ പത്രം കൊടുക്കും അവരുടേത് ഇവിടെ ഞങ്ങള് മേടിക്കും അങ്ങനെ എന്താണ് ഒരു സഹകരണമുള്ളത് കൊണ്ട് രണ്ട് മൂന്ന് പത്രങ്ങള് നമുക്ക് വായിക്കാനും സാധിക്കും വേറെ പത്രത്തിൻ്റെ വാർത്തകളും കാര്യങ്ങളുമൊക്കെ വിവിധ വാർത്തകള് ചിലപ്പോള് ഒരു പത്രത്തിനകത്ത് ദേശാഭിമാനിയിലുള്ള വാർത്ത കാണുകയില്ല മലയാള മനോരമയിലോ ദീപികയിലോ കാണുകയില്ല അപ്പോള് അങ്ങനെ അതിനകത്തുള്ളത് അങ്ങനെ മാറി മാറി വായിക്കും അങ്ങനെ ഞങ്ങള്ക്കെല്ലാവർക്കും താല്പര്യമുള്ള പത്രമാണ് അതൊക്കെ എത്രയായാലും ഞങ്ങളത് നിര്ത്തുകയില്ല പത്രം വായിക്കുകയെന്ന് പറയുന്നത് മാത്രം നിർത്തുകയില്ല അത് ഇന്നും വാങ്ങിക്കുന്ന പത്രമാണ് അത് വർഷത്തിലൊരിക്കല് അതിൻ്റെ ആ ആള്ക്കാര് അതിൻ്റെ പൈസ വന്ന് വീട്ടില് കൊണ്ടുവരും ഒരു പത്രം കൊടുക്കുന്ന ഒരാളെന്നും വീട്ടില് രാവിലെ ചിലപ്പോള് ഞങ്ങള് എഴുന്നേല്ക്കുന്നതിന് മുമ്പ് തന്നെ മുറ്റത്ത് പത്രം വെച്ചിട്ട് അവര് പോകും അങ്ങനെയാണ് പത്രം വായിക്കുന്നത് പത്രത്തിനകത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒത്തിരി വാർത്തകള് നമ്മള് ടി വിയിലൊന്നും കാണുന്നതിനെക്കാളും കൂടുതലായിട്ട് വിശദീകരിച്ച് കാര്യങ്ങളെഴുതും അപ്പോള് അതുകാരണം അത് വായിക്കാൻ ഒന്നുകൂടെ ഉത്സാഹം കാണും ആകാംക്ഷയോടെ വായിക്കും പിന്നെ ഓരോ ഒരു ഒരു പേജ് നിറച്ചും എന്നും ഇങ്ങനെ ചരമക്കോളം കാണുന്നുണ്ട് അതാണെങ്കിലും ഓ അതില് ഒത്തിരി പേര് ഓരോരോ സ്ഥലങ്ങളിലും ആ അകലെയുള്ള നാട്ടുപ്രദേശത്തുള്ളവര് ആണെങ്കില്പ്പോലും നമുക്കാ പത്രത്തില് നോക്കിയിരുന്നാല് നമുക്കറിയാൻ പറ്റും അങ്ങനെ ഒത്തിരി കാണാനും ഒക്കെയുണ്ട് പിന്നെ പിന്നെന്താണ് ഓരോ കൃഷിയും എല്ലാ കാര്യങ്ങളിലും പരസ്യങ്ങളായാലും ഒത്തിരിയുണ്ടല്ലോ അതൊക്കെ കാണാം ജോലി ജോലിയുടെ കാര്യങ്ങളെ പറ്റി വരുന്നത് ഞാന് ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട് ഏറ്റവും കൂടുതല് നോക്കും എന്താണെന്നുവെച്ചാല് മക്കള്ക്ക് ജോലിക്ക് ഒരപേക്ഷ അയയ്ക്കണം ഇന്നത് പഠിക്കാൻ പോകണമെന്നൊക്കെയുള്ളതിന്റെയൊക്കെ ഒത്തിരി പത്രത്തിലൂടെ വരുന്നുണ്ട് അപ്പോള് അതുകാരണം കൊണ്ട് പത്രത്തില് കൂടുതല് പത്രവായന ഒരു ഇന്ന് നിത്യ ഒരു ഹോബിയായിട്ട് തീർന്നിരിക്കുകയാണ് പത്രം ഒരു ദിവസം കിട്ടിയില്ലെങ്കില് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ചിലപ്പോള് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോള് പത്രം അന്നത്തേത് വായിക്കാൻ പറ്റിയില്ലെങ്കില് അത് അതുകൂടെ എടുത്ത് വായിക്കും തലേദിവസം ഇന്നലത്തേത് കൂടെ ചുമ്മാ നോക്കും പത്രം അങ്ങനെയാണ് ഇത്രയും എനിക്ക് താല്പര്യമാണ് പത്രം വായിക്കുന്നതിനോട് പത്രം വായിക്കുന്ന എല്ലാവർക്കും പത്രം കൊണ്ട് വായിച്ചുകഴിയുമ്പോള് പത്രം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണ് അതുകഴിഞ്ഞ് പത്രങ്ങള് പുസ്തകങ്ങള് പൊതിയാനെടുക്കാം ആ മറ്റ് എന്തെങ്കിലും കട വഴിയൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കാനും ഉപയോഗിക്കാനെടുക്കാം എങ്ങനെയൊക്കെ എത്രയോ പത്രം കൊണ്ട് ഈ വായനയും വായിക്കുന്നത് നമുക്ക് വിവരങ്ങള് അറിയാമെന്നത് മാത്രമല്ല ഒത്തിരി പ്രയോജനങ്ങളുണ്ടല്ലോ പിന്നെ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങള് പത്രത്തിലൂടെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നത് പത്രത്തിലാണ് ഒരു ടി വി വാർത്തയെന്നൊന്നും പറഞ്ഞാല് അത്രയും വരികയില്ല ഏത് സ്ഥലവും പേരും എല്ലാമൊന്ന് നല്ല വിശദമായിട്ട് എഴുതും അപ്പോള് അതുകാരണം കൊണ്ടത് വായിക്കാൻ നമുക്കൊരു ഉത്സാഹം തോന്നും കൂടുതല് വിവരങ്ങളറിയാൻ പറ്റും ലൈബ്രറിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പത്രങ്ങളോ പുസ്തകങ്ങളോ നോവലുകളോ ഒക്കെ വായിക്കാമായിരുന്നു പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാനൊത്തിരി നോവലുകളും ഇതുമൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെയുള്ള ഒന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് അങ്ങനത്തെയൊന്നും വായിക്കുന്നില്ല എന്നാലും പത്രങ്ങളിങ്ങനെ മുടങ്ങാതെ വായിക്കുന്നുണ്ട് മൂന്ന് പത്രം ആ വായിക്കുന്നുണ്ട് രണ്ടെണ്ണം വീട്ടില് വരുത്തുന്നത് ഒരെണ്ണം അടുത്ത വീട്ടില് നിന്ന് സഹകരിച്ച് ഞങ്ങളത് വായിക്കും ഞങ്ങള് വായിച്ചിട്ടങ്ങോട്ട് കൊടുക്കും അവര് വായിച്ചിട്ടിങ്ങോട്ട് തരും അങ്ങനെ പത്രം വായിക്കുന്നുണ്ട് പത്രം ഒരു നല്ല വാർത്താവിനിമയ മാർഗമല്ലേ ഏറ്റവും നല്ലയൊരു ഇതാണ് വായിക്കാനും വായനയിൽ നിന്നും ഒരുപാട് അറിവുകള് നമുക്ക് കിട്ടുന്നുമുണ്ടല്ലോ അതുകൊണ്ട് പത്രം വായിക്കുന്നത് നല്ലതാണ്